നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷ മലയാളം തന്നെയാണ് മാതൃഭാഷയും മലയാളാമാണ് കേരളത്തിൻ്റെ അപ്പം കേരളത്തിൽ തന്നെ പല ജില്ലകളുണ്ട് പല ജില്ലയിൽ പല ഭാഷകള് സംസാരിക്കുന്ന ആളുകളുമുണ്ട് അവരുടെ ഭാഷയിൽ വ്യത്യാസില്ല മലയാളം തന്നെയാണ് പക്ഷെ ഒരു ആ നമ്മുടെ ഓരോ വാക്കുകളുടെ പദപ്രയോഗം രണ്ടുസ്ഥലത്തും രണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വയനാടും തൃശൂരുമൊക്കെ എടുക്കുവാണെങ്കില് വയനാട്ടില് കുട്ട്യോളെ കുഞ്ഞുങ്ങള് വാവ മക്കൾ അങ്ങനെയൊക്കെ പറയും പക്ഷെ തൃശ്ശൂര് പോവുകയാണെങ്കിൽ ഉണ്ണികള് ഉണ്ണീന്നാണ് പറയുക കുട്ട്യോളൊക്കെ ചില വാക്കുകള് നമ്മുടെ ഓരോ സ്ഥലത്തു വാക്കുകളുടെ നമ്മുടെ പ്രയോഗിക്കുന്ന വിധം വ്യത്യാസമുണ്ട് അല്ലാതെ മാതൃഭാഷയെ നമ്മുടെ മലയാളത്തിൽ വലിയ ഇതൊന്നും വരുന്നില്ല നമ്മുടെ ഈ ലോക്കൽ ലാംഗ്വേജ് പിന്നെ കടൽതീരത്ത് ചെല്ലുമ്പം അവരുടെ ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട് പക്ഷെ അവര് മലയാളമാണ് പറയണത് അവരുടെ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട് എല്ല സ്ഥലത്തും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങള് പറയുന്നതും അവരുടെ ആ ശൈലിയും ഒക്കെ ഒരു പ്രത്യേകത അല്ലാതെ വേറെ വലിയ അങ്ങനെ പറയത്തക്ക വിത്യാസമില്ല ഈ വായനാട്ടിലോ അല്ലെങ്കില് കേരളത്തിലെവിടെ ചെന്നാലും അവരുടെ ഭാഷ മലയാളം അറിയുന്ന ആർക്കും മനസ്സിലാവും ചില വാക്കുകള് നമ്മളുപയോഗിക്കുമ്പം ഉള്ള മാറ്റം മാത്രമേ ഉള്ളു